വിഷുവുമായി ബന്ധപ്പെട്ട് എനിക്ക് വളരെയേറെ ഇഷ്ടമുള്ള പാട്ടാണ് കണികാണും നേരം കമലനേത്രൻ്റെ എന്ന പാട്ട് വളരെ കുഞ്ഞു നാൾ മുതലേ കണി ഒരുക്കി എല്ലാവരും കൂടി രാവിലെ കണി കാണുന്ന സമയത്ത് വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് ഈ പാട്ടൊക്കെ പാടാറുണ്ടായിരുന്നു വിഷുവിനെ സംബന്ധിച്ച് പറയുകയാണങ്കിൽ തലേ ദിവസം തന്നെ നമ്മൾ കണി ഒരുക്കി വെക്കുക എന്നുള്ളൊരു കാര്യമുണ്ട് അത് ഓട്ടുരുളിയിൽ നെല്ല് കണിക്കൊന്ന പുതുവസ്ത്രം സ്വർണ്ണം പിന്നെ പച്ചക്കറികൾ അതായത് വെള്ളരിക്ക അങ്ങനെ എന്തെങ്കിലും പച്ചക്കറികളൊക്കെ അതുപോലെ പഴവർഗ്ഗങ്ങൾ കണ്ണാടി തേങ്ങ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെയായിട്ട് കണി വെക്കും നമ്മൾ കണി വെച്ചതിന് കഴിഞ്ഞ് രാവിലെ വീട്ടിലെ മുതിർന്ന ആളുകൾ ആരായാലും എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ച് ബാക്കിയുള്ള അംഗങ്ങളെയെല്ലാം വിളിച്ചുണർത്തി എല്ലാവരും കൂടി ഒരുമിച്ച് കണി കണ്ട് ഈ ഈ പാട്ടൊക്കെ എല്ലാവരും കൂടെ ഒരുമിച്ച് പാടി അതൊക്കെ ഒരു നല്ല ഓർമ്മകളാണ് പിന്നെ വീട്ടിലെ മുതിർന്ന ആൾ അന്ന് ബാക്കിയെല്ലാവർക്കും വിഷുക്കൈനീട്ടം കൊടുക്കുന്ന ഒരു പതിവുണ്ട് അങ്ങനെ ഈ ഒരു പാട്ട് കേട്ടാൽ ഈ വിഷുവിൻ്റേതായിട്ടുള്ള ഓർമ്മകളൊക്കെ നമുക്കുണ്ടാകും